വിദേശയാത്ര പോയിട്ടുള്ളത് ഇന്ത്യേൻ്റെ ഉള്ളില് അത് ഡൽഹിയിലാണ് പോയത് വിമാനത്തില് പിന്നെ അവിടെ കുറേ അമ്പലങ്ങളും രാജ്യങ്ങളും കുറേ കണ്ടു അതു കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണങ്ങള് മോശമാണ് അവിടെ ഗോതമ്പ് ചപ്പാത്തി പിന്നെ പച്ചരിച്ചോറ് അതൊക്കെ ആണ് അതും ചെലവർക്ക് പറ്റൂല്ല എന്നാലും പിന്നെ അവിടെ കുറേയൊക്കെ രാജ്യങ്ങളൊക്കെ കണ്ടു പിന്നെ വൃന്ദാവനം കണ്ടു പിന്നെ കൃഷ്ണനെ എന്താ കൊണ്ടുപോണത് ആ ഗുഹ അതും കണ്ടു പിന്നെ യമുനാനദി അങ്ങനെ കുറേ രാജ്യങ്ങള് അവിടെ കണ്ടു ഞങ്ങള് തിരിച്ചുപോന്നു ഇനിയും കാണാൻ കൊതിയുണ്ട് അമേരിക്ക അവിടേക്കു പോകാനാണ് പൈസേം ഇല്ല പാസ്സ്പോർട്ടും ഇല്ല പിന്നെ ഓരോ ദിവസം കൂടുന്തോറും വയസ്സും കൂടുകയല്ലേ പിന്നെ അതുപോലെതന്നെ പോവാൻ കൊണ്ടുപോകാനുള്ള ആൾക്കാരും ഇല്ല പിന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് പോവാനും നല്ല കൊതിയുണ്ട് അവിടത്തെ ഭാഷയാണ്ച്ചാല് അറിയില്ല എന്നാലും കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറയൊക്ക ചെയ്യാമെന്ന് വിചാരിക്കുന്നു കൊണ്ടുപോകാൻ ആളില്ല പിന്നെ പൈസേം ഇല്ല

ഓരോ ദിവസം കൂടുന്തോറും അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ കൊണ്ടുപോകാനും ആളില്ല കാണാൻ നല്ല കൊതിയുണ്ട് അവിടത്തെ അവിടെയാണല്ലോ ഇപ്പോള് എല്ലാ ഓരോ ഉപകരണങ്ങള് ഉണ്ടാക്കുന്നതും എല്ലാ അതും കാണാനൊക്കെ നല്ല കൊതിയൊക്കെയുണ്ട് പക്ഷേ പോവാൻ പാസ്പോർട്ട് ഇല്ല പാസ്പോർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് അറിയില്ല പിന്നെ കൊണ്ടുപോവാനാണ് ആളില്ലാത്തത്